ഞാൻ പാചകം ചെയ്യുമ്പോൾ എടുക്കുന്ന മുൻകരുതലുകളെന്ന് വെച്ചാൽ ആദ്യം തന്നെ കൈകൾ നന്നായി വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകും പിന്നെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ ഒക്കെ എടുക്കും ആവശ്യത്തിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് പാചകം ചെയ്യുന്നത് അതിനാവശ്യമായ എല്ലാ സാധനങ്ങളും കരുതും അടുത്തുതന്നെ കരുതും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടല്ലൊ അടുത്തുതന്നെ കരുതും പിന്നെ ചെയ്യുന്നത് വെച്ചാൽ കത്തികൊണ്ട് കഷ്ണങ്ങളൊക്കെ പച്ചക്കറി കഷ്ണങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ അരിയുന്നതല്ലേ വെജിറ്റബിൾസ് ഒക്കെ അരിയുമ്പോൾ കൈ മുറിയാതിക്കാൻ വേണ്ടി മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിംഗർ ഫിംഗർ ഗ്ലൗസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലൊ അവൈലബിൾ ആയിട്ടുണ്ട് ഫിംഗർ ഗ്ലൗസ് അത് ഉപയോഗിക്കും ഫിംഗർ ഗ്ലൗസ് ഉപയോഗിക്കും പിന്നെ ഉപയോഗിക്കുന്നത് വെച്ചാൽ പിന്നെ എന്തെന്ന് വെച്ചാൽ മുൻകരുതൽ എന്ന് വെച്ചാൽ ഇതിപ്പം പാചകം ചെയ്യുമ്പോൾ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ടവൽ കരുതും പിന്നെ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് അത് സുരക്ഷിതമാണോ എന്ന് ഉറപ്പ് വരുത്തും ഏതിലാണ് പാചകം ചെയ്യുന്നത് പാചകം ചെയ്യുന്നത് ഇപ്പോൾ ഗ്യാസിലാണെന്ന് വെച്ചാൽ ഗ്യാസ് പാചകത്തിന് ഉപയോഗിക്കുമ്പോൾ അത് ലീക്ക് അല്ല എന്നുള്ള മുൻകരുതൽ ഫസ്റ്റിലേ നോക്കും കേട്ടോ അത് ലീക്ക് ആവാതെ ഇരി ലീക്ക് ആയി ലീക്ക് അവുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കും ഗ്യാസിൽ പാചകം ചെയ്യുമ്പോൾ കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തും അവരോട് ദൂരെ ഇരിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാചകം ചെയ്യുന്നത് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ അടുത്ത് വന്നാലൊരു പാചകവും നടക്കില്ല കേട്ടോ പേടിയാണ് കുട്ടികൾ അടുത്തിരിക്കുമ്പോൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ എപ്പോളും ഒരുപോലെ ഉണ്ടാവുമെന്നില്ല എപ്പോഴാണ് അവരുടെ തട്ടി മാ വീഴുക അവരെ പൊൾ അവർക്ക് പൊള്ളുക എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് മുമ്പ് എൻ്റെ മകൻ ഇങ്ങനെയാണ് ഞാൻ ചായ ഉണ്ടാക്കുന്ന സമയത്ത് അവന് ഒന്നര വയസ്സേ ആയിട്ടുള്ളു ഞാൻ ചായ വയ്ക്കുകയായിരുന്നു എൻ്റെ ഭർത്താവിന് ചായ വേണം എന്ന് പറഞ്ഞിട്ട് ചായ വയ്ക്കുന്ന സമയത്ത് മകൻ വന്നു അവൻ കുഞ്ഞല്ലേ അവനൊന്നും അറിയില്ലല്ലോ അത് ചൂടാണോ തണുപ്പാണോ അതൊന്നും അവന് അറിയില്ലല്ലോ ഞാൻ അവർക്ക് കുടിക്കാൻ വേണ്ടി ഒഴിച്ച് വെച്ച ഗ്ലാസ്സും ചായയും ഇവനെടുത്ത് ഇവൻ്റെ ദേഹത്തേക്ക് മറിഞ്ഞു ദേഹത്തേക്ക് മറിഞ്ഞ സമയത്തോ എന്തൊരു അവസ്ഥയാണ് അനുഭവിച്ചതെന്ന് പറഞ്ഞ് അറിയിക്കാൻ വഴിയില്ല എൻ്റെ മകനെ വെള്ളത്തിലിട്ടിട്ട് മു ക്കി നിർത്തിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് പോയത് വയറിൻ്റെ അടുത്ത് മുഴുവനായിട്ട് പൊള്ളി ആ പൊള്ളിയതിൻ്റെ പുകിള എന്തോ വരുന്നില്ലേ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വ വളരെ സങ്കടം ആയിനു അതുകൊണ്ട് ഇപ്പോൾ വളരെ എടുക്കുന്ന കൂടുതൽ എടുക്കുന്ന മുൻകരുതൽ എന്ന് വെച്ചാൽ കുട്ടികളെ മാറ്റി നിർത്തുക എന്നാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും മുൻകരുതൽ ഒരനുഭവം ഉള്ളത് കൊണ്ടുതന്നെ ഇപ്പോൾ രണ്ട് പേരെയും ദൂരെ നിർത്തിയിട്ടാണ് ഞാൻ പാചകം ചെയ്യാറുള്ളത് അവരെ അടുത്ത് നിർത്താറില്ല പാചകം ചെയ്യുന്ന സമയത്ത് അവരെ ഒട്ടും അടുത്ത് നിർത്താറില്ല ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ പോലും ഞാൻ അവരെ അടുത്ത് നിർത്താറില്ല പിന്നെ എടുക്കുന്ന മുൻകരുതൽ എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ഇപ്പം എന്ത് പാചകം ചെയ്യുമ്പോളും എടുക്കേണ്ട മുൻകരുതലുകൾ എന്ന് വെച്ചാൽ ആവശ്യമായ സാധനങ്ങൾ അടുത്തടുത്ത് തന്നെ വയ്ക്കുകയും ഓടാനൊന്നും സമയമില്ല കേട്ടോ പാചകം ചെയ്യുമ്പോൾ അത് നമുക്ക് ദേഹത്തേക്ക് വീഴാതിരിക്കാനുള്ള കുറച്ച് ശ്രദ്ധിക്കുകയും സ്പീഡ് ആക്കില്ല പാചകം സമാധാനത്തിലേ ചെയ്യൂ എന്ത് പാചകം ചെയ്യുന്നെങ്കിലും സമാധാനമായിട്ടേ ചെയ്യൂ സ്പീഡ് സ്പീഡ് കൂടിയാലുള്ളത് എന്ന് വെച്ചാൽ സ്പീഡ് കൂടിയെങ്കിൽ ഒരു പാചകവും ശരിയാവത്തുമില്ല നമ്മുടെ കൈ പൊള്ളുകയും അങ്ങനെ ഒക്കെ സംഭവിക്കാറുണ്ട് എനിക്ക് പൊതുവേ പിന്നെ നമ്മൾ മുടിയൊന്നും അഴിച്ചിടില്ല കേട്ടോ മുടിയൊന്നും അഴിച്ചിടാറില്ല പാചകം സെമ്മെ ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് കൈ ഒക്കെ വൃത്തിയാക്കിയിട്ട് പാചകത്തിലേക്ക് കടക്കും പിന്നെ എടുക്കുന്ന മുൻകരുതൽ എന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്ത് പാചകം ചെയ്യുന്നതിൻ്റെ കറകളൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഒരു ടവൽ ഉപയോഗിക്കും കേട്ടോ ദേഹത്തേക്ക് സ് ഷെഫ്മാരൊക്കെ ഇടുന്നില്ലേ അതൊക്കെ ഉപയോ ഉപയോഗിക്കും പിന്നെ പാചകം ചെയ്യുമ്പോൾ എടുക്കുന്ന മുൻകരുതൽ എന്ന് വെച്ചാൽ എന്താണ് പാചകം ചെയ്യുന്നത് അതിൻ്റെ ഒരു വ്യക്തമായൊരു നിലപാട് അതിന് എന്താണ് വേണ്ടത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് എന്തൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് ഞാനിപ്പം ഒരു പാചകം ചെയ്യുമ്പോൾ ഒരു ചായയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചായയ്ക്ക് വെള്ളം വേണം ചായപ്പൊടി വേണം പഞ്ചസാര വേണം ചായ വയ്ക്കാൻ അടുപ്പ് വേണം അടുപ്പിലേക്ക് ചായ വെച്ചിട്ട് അങ്ങനെ എല്ലാ മുൻകരുതലും ഫസ്റ്റേ എടുക്കും പിന്നെ ഒരീ ഞാനിപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണെങ്കിൽ തേങ്ങ എടുക്കും തേങ്ങ ക തേങ്ങ വറുത്ത് അതിലേക്ക് പിന്നെ മുളക് വറുത്ത് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വയ്ക്കും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത് അതാണ് കേട്ടോ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞ് പോയാൽ പിന്നെ പാചകം ചെയ്തതിന് ഒരു ഗുണവും ഇല്ലാതായി പോവും അപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന മുൻകരുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് ഞാൻ ചെയ്യാറുള്ളത് ഒരു പാചകം എന്താണ് ചെയ്യുന്നത് അതിനെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് അതൊക്കെ വെച്ചിട്ട് അത് ഓരോരോ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് ഞാൻ പാചകം ചെയ്യാറുള്ളത്